ഹലോ ആ ഹലോ ഹലോ ആ ആ ഇത് ഹെൽത്ത് സെൻ്ററാണോ ഹെൽത്ത് സെൻ്ററാണോ ആ ആ അപ്പോൾ ഒന്ന് ഞങ്ങൾ കോവിഡിനുള്ള വാക്സിൻ നിങ്ങടളുടെ അവിടെ ഏതൊക്കെയാണ് ഉള്ളത് കോവിൻഷീൽഡ് ഉണ്ട് അല്ലേ ആ അപ്പം ഈ ഈ വാക്സിന് നമ്മൾക്ക് ഇപ്പം ഇതിലേതാ നല്ല വാക്സിനേതാ ഉള്ളത്

ആ അത് ആ പാർശ്വഫലങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് ഇപ്പം എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അസുഖങ്ങളൊക്കെ ഉള്ള പനിയൊക്കെ ഉള്ള ആളാ പനി വന്നിട്ട് ഭേദമായതാ കൊറോണ ഒരു തവണ വന്നതും കൂടിയാ ഏഹ് അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയൊരാൾക്ക് പറ്റുമോ ഇങ്ങനൊരു വാക്സിൻ ആ ആ അവിടെ അവിടെനിന്ന്

ഇതിൻ്റെ പാർശ്വഫലങ്ങൾ മറ്റൊന്നും ഇല്ല അപ്പം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഹാ ഹാർട്ട് സംബന്ധമായ കുഴപ്പങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുമോയെന്നുള്ള രീതിയിൽ സംശയം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്

ആ ആ അപ്പം അപ്പം കോവീഷീൽഡ് എടുക്കാൻ വേണ്ടി ഞാൻ നാളെയങ്ങോട്ട് വന്നേക്കാം കേട്ടോ ഓ ഓക്കെ ശരി ആ ആ ആ ആ ശരി ആരെങ്കിലും കൊടുത്താൽ ആ ആ അപ്പം അപ്പം അങ്ങനെയായിക്കോട്ടെ എന്നാൽ അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ രാവിലെ പത്ത് പത്ത് പത്ത് മണിക്ക് പത്ത് മണിക്ക് രാവിലെ വന്നേക്കാം കേട്ടോ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി